ഹലോ

പനിയാണ് ഭയങ്കര പനിയാണ് രണ്ട് ദിവസമായിട്ട് പനി തുടങ്ങിയിട്ട് ഭയങ്കര ക്ഷീണവും അപ്പോൾ കോറോണേൻ്റെ ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ പോസിറ്റീവാണെന്നാണ് പറഞ്ഞത് ആ അപ്പോൾ ആശാ വർക്കറുടെ അടുത്ത് പോയിട്ട് ഗുളിക ഒക്കെ വാങ്ങി അവർ കൊണ്ടു തന്നിട്ടുണ്ട് അത് കുടിക്കുന്നുണ്ട് പിന്നേ ഇല്ല വലിയ കുറവൊന്നുമില്ല രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ആ ഉണ്ട് ഉണ്ട് ആ ആ ആ ഇത് വൈകുന്നേരം ആവുമ്പോഴാണ് പനി കൂടുന്നത്

ഓഹ് ആയിക്കോട്ടെ അടുത്ത് ഇല്ല ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഒന്നും ആയില്ല ആർക്കുമൊന്നുമില്ല

ഇല്ല ഇല്ല ആ ഇല്ല ഇല്ല ഒറ്റയ്ക്കൊരു റൂമിൽത്തന്നെയാണ് കഴിയുന്നത്

ആയിക്കോട്ടെ

ആ ആ ആ ആ ആ ആ

ആ ഇഞ്ചിവെള്ളം ആ പിന്നെ മഞ്ഞൾ വെളെളമെല്ലാം കുടിക്കുന്നുണ്ട് ഞാൻ ആ ആ ആ പിന്നെയൊ ആ ഇല്ല ആ ആ ആ ആ ആ

ഓഹ് ആയിക്കോട്ടെ ഓഹ് എത്ര ദിവസമാണ് പതിനാല് ദിവസം ആ പുറത്ത് ഇറങ്ങാൻ പാടില്ല ആ ആ ആ

ഓഹ് ആയിക്കോട്ടെ ആ ശരി